മലയാള ഭാഷ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മറ്റു ഭാഷയുമായിട്ട് എങ്ങനെയൊക്കെ ബന്ധപ്പെടുന്നെന്ന് പറഞ്ഞാൽ മലയാള ഭാഷ ഇന്ത്യയിലെ തന്നെ ഒരു താഴെ ഇന്ത്യയുടെ താഴെ സൗത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ ഒരു ഭാഷയാണ് അതുപോലെ തന്നെ ഈ ഈ മലയാളം അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള മറ്റ് ഭാഷകളുണ്ടാവുമല്ലോ ഈ തമിഴ് അതുപോലെ തന്നെ കന്നഡ അങ്ങനത്തെ ഭാഷകളും ഒക്കെ ദ്രാവിഡം ഭാഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുടുംബമുണ്ട് ഭാഷാ കുടുംബത്തിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ തമിഴ് തെലുങ്ക് കന്നഡ തുളു ഭാഷ അതൊക്കെ ഇതേ ഫാമിലിയിൽ നിന്ന് വരുന്നതാണ് ആ ഒരു ഭാഷാ ഫാമിലി വച്ചു നോക്കുമ്പോൾ മറ്റു ഭാഷകളുമായിട്ട് നമ്മുടെ മലയാളം ഷെയറ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ചരിത്രപരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലയാള ഭാഷയുടെ ചരിത്രപരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ അതിൽ സംസ്കൃതത്തിനോട് ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട് ഇതേ ഇൻഫ്ലുവൻസ് തന്നെ വേറെ ഇന്ത്യയിലുള്ള സംസാരിക്കുന്ന ഭാഷകളിലും ഉണ്ട് അത് ഞാൻ ഈ തമിഴാണെന്നുണ്ടെങ്കിലും വേറെയുള്ള ഭാഷകളിലും ഇതുപോലെ തന്നെ എതുണ്ട് ബന്ധമുള്ളതുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഈ ഭാഷയിലുള്ള ഒരുപാട് വാക്കുകൾ നോക്കുമ്പോൾ മറ്റു ഭാഷയിൽ പ്രധാനമായിട്ടും തമിഴ് അതുപോലെ തന്നെ ഭാഷകളുമായിട്ട് ഉറുദു ഹിന്ദി ഭാഷകളിലായിട്ട് ഭയങ്കരമായിട്ട് യോജിക്കുന്നത് ഒരുപാട് വാക്കുകളെ നമക്ക് കാണാൻ പറ്റും ഈ മലയാളത്തിലൊക്കെ നമ്മൾ സാധാരണ ചില വാക്കുകളുണ്ട് ചില വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് മറ്റു ഭാഷകളുടെ വാക്കുകളാണ് മലയാളത്തിന് അതിന് അതിന് വാക്കുണ്ടെങ്കിൽ കൂടി അത് അത്ര പൊതുവെ എന്തല്ല സീകാര്യമല്ല പൊതുവെ എല്ലാവർക്കും അറിയാത്ത അങ്ങനത്തെ വാക്കുകൾ ഉണ്ടാവും ഇപ്പം പുതിയ പയം എന്നുള്ളതിനൊക്കെ അതുപോലെ തന്നെ പുതിയ എന്നുള്ളതിനൊക്കെ എന്താണ് നമ്മളെ മലയാളത്തിൽ ഉപയോഗിക്കുന്നതും തമിഴിൽ ഉപയോഗിക്കുന്നതൊക്കെ ഒരേ സാധനമാണ് പായന്ന് പറഞ്ഞാൽ രണ്ടു ഭാഷയിലും ഒരുപോലെ തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ മലയാളം അതുപോലെ തന്നെ കേരളത്തിലാണല്ലോ ഈ മലയാളമുള്ളത് ഈ കേരളത്തിൻ്റെ കാസർഗോഡ് ഭാഗത്തു നിന്ന് പറയുമ്പോൾ കാസർഗോഡിലുള്ള മലയാളത്തിന് ഈ കന്നഡ ഭാഷയുമായിട്ട് കുറച്ചു റിലേഷൻഷിപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഈ തൃശ്ശൂർ ആ ഭാഗത്തുള്ള പാലക്കാട് ആ ഭാഗത്തുള്ളവർക്ക് തമിഴിനോട്കൊ കുറച്ച് ടച്ചുണ്ട് അപ്പോൾ കേരള ഭാഷ കേരളത്തിലെ മലയാള ഭാഷയ്ക്ക് പ്രധാനമായിട്ടും നല്ല ഒരു ഇന്ത്യയിലെ മറ്റു ഭാഷകളുമായിട്ട് പ്രധാനമായിട്ട് തമിഴിൽ അതുപോലെ തന്നെ കന്നഡക്കായിട്ട് നല്ല ബന്ധമുണ്ട് അപ്പോ അതിൻ്റെ ബന്ധത്തെ നമുക്ക് നിരാകരിക്കാൻ ഒരിക്കലും കഴിയില്ല അതിന് ഒറ്റയ്ക്ക് സ്വതന്ത്രമായിട്ടുള്ള നിലനിൽപ്പുണ്ടെങ്കിൽ കൂടി അതിൻ്റെ രാഷ്ട്രീയവും അതിൻ്റെ വളർന്നു വരുന്നതിലും വരുമ്പോൾ അതിനും മറ്റു ഭാഷകളുമായിട്ട് നല്ല ബന്ധങ്ങളുണ്ട് അതിന് നമുക്കൊരിക്കലും വിസ്മരിക്കാൻ ആവതില്ല അപ്പോൾ ഇത്രയെക്കെയാണ് പ്രധാനമായിട്ട് തമിഴിൽ കന്നഡ ഹിന്ദി ഇംഗ്ലീഷിലുള്ള എന്നോട് പോലും ഉള്ള ഒരുപാട് വാക്കുകളിൽ പോലും നമ്മുടെ മലയാളത്തിലേക്ക് കോൺട്രിബ്യൂട്ട ചെയ്തിട്ടുണ്ട് അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കംട എടുത്തിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്